ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പൊ അതായത് വിനോദ യാത്രക്കൊക്കെ പോകാൻ പറ്റിയ ഒരുപാട് മ്യുസിയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കാലിക്കറ്റ് ജില്ലയിലുണ്ട് ഇപ്പൊ നമുക്ക് വേണെങ്കിൽ പറയാം പഴശ്ശിരാജാ മ്യുസിയം അതുപോലെത്തന്നെ മൊയ്തു മൗലവി മ്യുസിയം പിന്നെ അതായത് കുഞ്ഞാലിമരക്കാർ മ്യുസിയം എസ്ക്കെ പൊറ്റക്കാട് മ്യുസിയം അങ്ങനെ ഒരുപാട് മ്യുസിയങ്ങളും കാര്യങ്ങളൊക്കെയിണ്ട് അപ്പോൾ നമുക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മ്യുസിയങ്ങളിലൊക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുരാതനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതായത് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ സ്കൂൾ കുട്ടികളെയൊക്കെ വിനോദ യാത്രക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് അറിവും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ഇതൊക്കെ വളരെ ഉപകരായിട്ടുള്ളൊരു കാര്യാണ് അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൂടുതലായിട്ടും മ്യുസിയങ്ങളിലക്കെ അങ്ങനെയൊക്കെയാണ് പോയി അതായത് സന്ദർശിക്കുക മെയിനായിട്ട് കുഞ്ഞാലിമരക്കാർ മ്യുസിയത്തിലൊക്കെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കാണാൻ അതുപോലെത്തന്നെ പഴശ്ശിരാജാ മ്യുസിയങ്ങളിലൊക്കെ ഒരുപാട് പഴയ വസ്തുക്കളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്